പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പതിനാറ് അഞ്ച് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്തൊൻപത് ഇരുപത്തൊന്ന് പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല്